ആ കേൾക്കാം ഞങ്ങൾ തിരുവനന്തപുരത്തുന്നായിരുന്നു ഞങ്ങൾക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കൊരു ഇത് തൊഴാൻ വേണ്ടി പോവാൻ വേണ്ടി ആയിരുന്നു ഞങ്ങൾ ആറ് പേരോളം ഉണ്ട് ആ ഞങ്ങൾക്ക് ആ ഓക്കെ ഓക്കെ ട്രാവലർ മതി ഞങ്ങൾക്ക് കുറെ ലെഗേജൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തുന്നായിരുന്നു വരുന്നത് ആ ഞങ്ങൾക്ക് ഒൻപത് മണി ആവുമ്പം അമ്പലത്തിൽ എത്തത്തക്ക എത്തണം അല്ല ജൂ ജൂലൈ പ അഞ്ചാം തീയതി രാവിലെ വരാനാണ് വെളുപ്പിന് അപ്പം വെളുപ്പിനുള്ള സജ്ജീകരണം ഉണ്ടാക്കി തരണം ആ ഇപ്പോൾ ഈ ട്രാവലർ ആവുമ്പോഴ്ത്തേനും എന്നാണ് റേറ്റാവും അവിടെ മാത്രമേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പം ഇനി വേറെ സ്ഥലത്തോട്ട് വല്ലോം പോവാൻ പ്ലാനിംങ്ങു്ണ്ടെങ്കിൽ റേറ്റ് എന്നാവും കൂടുവോ അപ്പോൾ നാലായിരത്തഞ്ഞൂറ് രൂപ ഓക്കെ അപ്പോൾ ഞങ്ങൾ ജൂ ജൂലൈ അഞ്ചിന് മുന്നേ ഞാൻ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ വരാം ആ അഡ്വാൻസും തന്ന് ഓക്കെ ഓക്കെ